ആ ഹലോ ഞാനൊരു ഷൂസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ക്യാൻസൽ ചെയ്തു തരണം അത് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാൻ ഓഡർ ചെയ്ത സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുത്തിരുന്നത് അപ്പം ഓഡറ് നാളെയെത്തും നാളെ വരുമെന്നാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് അപ്പം ആ ഓർഡർ എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിൽ റെഡിയായിട്ടില്ല അപ്പം അതുകൊണ്ട് ആ എനിക്ക് ആ കാരണം കൊണ്ടുതന്നെ എനിക്ക് ഓഡർ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്യാൻസൽ ചെയ്തുതരണം ക്യാൻസല് ഇപ്പം ക്യാൻസല് ആ ക്യാൻസെല് ചെയ്തിട്ട് പിന്നീട് ക്യാഷുള്ള സമയത്ത് ഞാൻ അത് റീഓഡർ ചെയ്യാം അപ്പോൾ എനിക്ക് ഇപ്പോഴ് എന്തായാലും ക്യാൻസൽ ചെയ്തു തന്നാലെ പറ്റു താങ്ക് യൂ